നമ്മുടെ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ ഈ അടുത്ത കാലത്തായിട്ട് വളരെ വളരുകയും വികസിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ബാങ്കിംഗ് മേഖല ഒരു പ്രധാന ഇതാണ് നമ്മൾ നേരത്തെയൊക്കെ ഏതു കാര്യത്തിനും ബാങ്കിൽ പോകുകയും നമ്മൾ എല്ലാ കാര്യങ്ങളും ബാങ്കിൽ ചെന്നു സാധിക്കുന്ന ഒരു കാലയളവായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ കാലം വന്നപ്പോഴത്തേന് നമ്മുടെ എല്ലാ രീതികളിലും നമ്മുടെ രാജ്യം മുന്നോട്ടു പോകുകയും ഡിജിറ്റലായിട്ട് ഒരുപാട് മുന്നോട്ടു പോകുകയും സമ്പത്ത് വ്യവസ്ഥകൾ ഒരുപാട് വളരുകയൊക്കെ ചെയ്തു അതുകൊണ്ട് നമുക്ക് ഇപ്പം വളരെയധികം കാര്യങ്ങൾ വളരെയധികം സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്ന് ഇപ്പം നമുക്ക് ഗൂഗിൾ പേ പോലെയുള്ള സംവിധാനങ്ങളിലൊക്കെ കിട്ടിയിട്ടുള്ളതു കൊണ്ട് നമുക്ക് ബാങ്കിൽ പോകാതെ തന്നെ നമുക്ക് ഇവിടെ വീട്ടിലിരുന്ന് എല്ലാം കൈകാര്യങ്ങൾ ചെയ്യാവുന്ന രീതിയിൽ ഏതു കടകളിൽ ചെന്നാലും ഇന്ന് ഇപ്പം നമുക്ക് പൈസ കയ്യിൽ കൊണ്ടു നടക്കേണ്ട കാര്യവുമില്ല ഗൂഗിൾ പേ ചെയ്താൽ മതി അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വികസിതമായിട്ടു നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിൽ അതു വളരെ അധികം പുരോഗതി നമ്മുടെ രാജ്യത്തിനു വരുത്തി വെച്ചിരിക്കുന്നു ഇന്ന് പിന്നെ ഏത് എത്ര അറിയാൻ പാടില്ലാത്തവർക്കും ഇന്നിപ്പം ഈ മൊബൈൽ വഴിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തക്കവണ്ണം നമ്മുടെ ആൾക്കാർക്ക് വളരെയധികം അറിവും വിജ്ഞാനവും എല്ലാം കിട്ടിക്കൊണ്ട് നമ്മുടെ രാജ്യം വളരെ അധികം മുന്നോട്ടു പോയിരിക്കുകയാണ് ഈ സംവിധാനങ്ങളൊക്കെ വന്നതു കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളുമെല്ലാം വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുമുണ്ട് പിന്നെ ഈ ഡിജിറ്റൽ പെയ്മെൻ്റ് കൊണ്ട് വളരെയധികം ഉപകാരങ്ങളാണ് വന്നിട്ടുള്ളത് കാരണം നമുക്കിപ്പം ഒരു പ്രായം ചെന്നു വയ്യാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് പുറത്തു പോയി ചെന്ന് ബാങ്കിൽ ചെന്ന് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണേൽ പോലും നമുക്ക് ഇവിടെ വീട്ടിൽ ഇരുന്നും കൊണ്ടാണെങ്കിലും ഇന്ന് ഈ ഒരു ഫോൺ ഉണ്ടെന്നരികിൽ നമുക്ക് അതിനകത്തു കൂടി ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് അങ്ങനെ ഈ നമ്മുടെ ഈ ഡിജിറ്റൽ പെയ്മെൻ്റ് സാമ്പത്തിക മേഖലയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്